എനിക്ക് ഹൈക്കിങ് ചെയ്യാൻ പോവാൻ കൂടുതലും ഇഷ്ടമാണ് മലകളിലാണ് അതേപോലെ മലകളിൽ പോയാൽ നമുക്ക് സൂര്യാസ്തമയം സൂര്യോദയമൊക്കെ കാണാം അതുകൊണ്ടാണ് എനിക്ക് അവിടെ കൂടുതൽ ഇഷ്ടമുള്ളത് എന്നാലും വനങ്ങളിലൊക്കെ പോവാൻ എനിക്ക് ഇഷ്ടമാണ് ഇഷ്ടമാണ് ബീച്ചുകളിലും മഞ്ഞു മൂടിയ പർവതകങ്ങളിലൊക്കെ ഇടതൂർന്ന വനങ്ങളിലും നല്ല ഇഷ്ടമാണ് സൂര്യാസ്തമയം സൂര്യോദയമൊക്കെ കാണാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അതിനോട് എനിക്ക് താൽപര്യം അതേപോലെ മലകയറാനുമാണ് മലകയറുമ്പോൾ നമുക്ക് പ്രത്യേക രസമാണ് കൂട്ടുകാരുടെയൊക്കെ കൂടെയാണെങ്കിലും നല്ല രസമാണ് മഞ്ഞുമൂടിയ സ്ഥലമാണെങ്കിൽ നല്ല രസമാണ് മഞ്ഞത്തൊക്കെ കളിക്കാം നമുക്ക് അത് നല്ല ഒരു ഫീൽ ആണ് ബീച്ചുകളാണെങ്കിൽ നമ്മൾക്ക് കുറേ മണലൊക്കെ വാരിക്കൂട്ടി നല്ലോണം കളിക്കാം കൂടുതൽ ഇഷ്ടം മലയാണ് കാടുകളിൽ നമുക്ക് പോവാറുണ്ട് അവിടെ നല്ല മൃഗങ്ങളെയൊക്കെ കാണാം ഇതുവരെ കാണാത്ത മൃഗങ്ങളെയൊക്കെ കാണാം മാൻ ആന അങ്ങനെയൊക്കെ പക്ഷെ കൂടുതലും ഇഷ്ടം എനിക്ക് മല മലകയറാനാണ് അതാവുമ്പോൾ നല്ല രസമാണ് നല്ല കയറ്റവും മലയും കുന്നൊക്കെ കയറി ഇങ്ങനെ പോവാൻ നല്ല രസമാണ് അതാണ് നല്ല കൂടുതൽ രസം അതിനോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം എന്നാലും ബാക്കിയുള്ളതൊക്കെ ഇഷ്ടമാണ് മലയാണ് കൂടുതൽ ഇഷ്ടം